നമുക്കാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങള് നമ്മുടെ തന്നെ കൊണ്ടു നമുക്കിഷ്ടപ്പെട്ട മോഡലില് ഇഷ്ടപ്പെട്ട കളറില് നമ്മളന്നെ അത് ഡിസൈൻ ചെയ്യുമ്പോളഅ അതൊരു പ്രത്യേക ആത്മസംതൃപ്തിയാണു കിട്ടുക ഒരു സൂചിയും നൂലും മാത്രം ഉപയോഗിച്ച് മെഷീനിലോ അല്ലെങ്കിൽ കൈകൾ കൊണ്ടൊ ഒക്കെ വസ്ത്രങ്ങള് നെയ്തെടുക്കുമ്പോഴാണ് ഓരോ തുണികളും ഉണ്ടാകുന്നത് പണ്ടൊക്കെ ആളുകൾ എന്താ ചെയ്തിരുന്നത് അവർ കൈ കൊണ്ടാണു വസ്ത്രങ്ങള് നെയ്തെടുക്കുകയാണു ചെയ്തിരുന്നത് അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടായിരുന്നത് എന്നപ്പോള് പത്തൊമ്പതാം നൂറ്റാണ്ടില് തയ്യൽ മെഷീൻ്റെ കണ്ടുപിടുത്തം വന്നതോടെ വൻ തോതില് തയ്യൽ വസ്തുക്കൾ ഉൽപാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോള് ഈ സ്റ്റിച്ചിങ്ങെന്നു പറയുന്നതു നമുക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങള് നെയ്തെടുക്കുന്നതിനെയാണ് സ്റ്റിച്ചിങ്ങെന്നു പറയുന്നത് അതു നമ്മള് തന്നെ ചെയ്യുമ്പോള് അതൊരു പ്രത്യേക ഫീലാണല്ലേ കുഞ്ഞുടുപ്പുകള് തുടങ്ങി വലിയവരുടെ ചുരിദാര് ഫ്രോക്ക് ടോപ്പ് സ്കേർട്ട് ബ്രൈഡൽ ഡ്രസ്സ് എന്നിങ്ങനെ ഒരുപാടു വ്യത്യസ്തതരം വസ്ത്രങ്ങള് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഈ സ്റ്റിച്ചിങ്ങിനോടുള്ള അമിത ആവേശം കൊണ്ടുതന്നെ ഞാനെൻ്റെ പത്താം ക്ലാസ്സിൻ്റെ വെക്കേഷനിലാണ് സ്റ്റിച്ചിങ്ങ് പഠിച്ചത് അന്നു മുതലാണു ഞാനിങ്ങനെ കുഞ്ഞുടുപ്പുകൾ തുടങ്ങി ഇപ്പോഴീ ബ്രൈഡൽ ഡ്രസ്സ് വരെ എത്തിനിൽക്കുന്ന ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് എത്തിയത് സ്റ്റിച്ചിങ് എന്നു പറഞ്ഞാല് ഇപ്പോള് നമ്മള് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പുതിയ ബോട്ടിക്ക് തുടങ്ങണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ കൊണ്ട് ഒരു ബോട്ടിക് തുടങ്ങുക എന്നുള്ളത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ യൂണിറ്റ് തുടങ്ങുക നമ്മള് സ്റ്റിച്ചിങ് അറിയാത്തവർക്കു വേണ്ടി അതു നല്ല രീതിയില് അവർക്കും കൂടി അനുയോജ്യമായ കുറഞ്ഞ ഫീസില് അതു പഠിപ്പിച്ചുകൊടുക്കുക എന്നതും എൻ്റെ വലിയ ഒരാഗ്രഹമാണ് നമ്മളുടെ അറിവു നമ്മൾ മറ്റുള്ളവർക്കു കൂടി പകർന്നുകൊടുക്കുമ്പോൾ അവരും അത് സക്സസായി ചെയ്യുമ്പോള് അതിൽ നിന്നും നമുക്കു കിട്ടുന്ന ഒരു സന്തോഷം അത്ര ചെറുതൊന്നുമല്ല അല്ലേ അതുകൊണ്ടുതന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾകൊണ്ട് ഇതുപോലെ ഒരു ബൊട്ടിക് തുടങ്ങാനും ഒരു സ്റ്റിച്ചിങ്ങ് യൂണിറ്റ് തുടങ്ങാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കു ചുറ്റുമുള്ളവരും അല്ലെങ്കില് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നാല് അതു നമ്മള് യാതൊരു മടിയും കൂടാതെ ചെയ്തുകൊടുക്കുമ്പോഴും നമുക്കു നല്ല ആത്മസംതൃപ്തിയാണു കിട്ടുക ഈ ബ്രൈഡൽ ഡ്രസ്സിലൊക്കെ അതുപോലെ കൂടുതല് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെ കൂടുതല് സ്റ്റിച്ച് ചെയ്യാനും താല്പര്യമുണ്ട് അതു നമുക്ക് ഒരുപാട് ഇപ്പോള് ട്രെൻഡിങ്ങായിട്ടുള്ളതാണല്ലോ നമുക്കിഷ്ടപ്പെട്ട മോഡലില് ഇപ്പോള് ഫാഷൻ അങ്ങനെ മാറി മാറി വരുന്നോണ്ടിരിക്കുകയാണിപ്പോള് ഈ ബ്രൈഡൽ ഡ്രസ്സൊക്കെ നമ്മളെന്നെ ഡിസൈൻ ചെയ്യുമ്പോള് അതിനു വലിയ വാല്യുവാണ് ഇപ്പോള് ഉണ്ടാവുന്നത് പഴയ ഏത് ഡ്രസ്സ് കിട്ടിയാലും ഇപ്പോഴതിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് ഒരു പുതിയ മോഡല് ഉണ്ടാക്കിയെടുക്കാനിപ്പോള് എനിക്കു സാധിക്കാറുണ്ട് ഏത് ഡ്രസ്സ് കിട്ടിയാലും ഇപ്പോള് ഒരു ഷർട്ടായിക്കോട്ടെ ഒരു പാന്റായിക്കോട്ടെ അതു കിട്ടിയാലും കുഞ്ഞു മക്കള്ക്കൊക്കെ ഷർട്ട് വച്ചിട്ടോ അല്ലെങ്കില് പാന്റ് വച്ചിട്ടോ ചെറിയ ഫ്രോക്ക് അല്ലെങ്കില് ടോപ്പ് ഇങ്ങനെയൊക്കെ ഞാനിപ്പോള് ചെയ്തെടുക്കാറുണ്ട് അതുകൊണ്ടുതന്നെ സ്വന്തമായിട്ടൊരു ബൊട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങ് യൂണിറ്റോ ഒക്കെ തുടങ്ങിയാല് അത് സക്സസ്സ് ആകുമെന്നുള്ളൊരാത്മസംതൃപ്തി എനിക്കുണ്ട് ഒന്നു മനസ്സുവച്ചാല് പ്രായഭേദമന്യേ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്നൊരു കലയാണ് ഇത് അപ്പോള് സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനും അതുപോലെ ഒരു ബൊട്ടിക് തുടങ്ങാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്കുവേണ്ടി ഞാൻ കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യും